ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റോം ചില ചെലവ് കുറഞ്ഞ യാത്ര എന്ന് പറയുന്നത് പാലരുവി പോയതായിരുന്നു പാലരുവിയിൽ പോവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നാണ് പോയത് അതുകൊണ്ട് നമുക്ക് പെട്രോളിന്റെ ഒരു ചിലവല്ലേ വരുന്നുള്ളായിരുന്നു പെട്രോളിന്റെ ചിലവ് മ മറ്റൊരു കാറ്ക്കെ വിളിച്ചിട്ട് നമ്മൾ പോവുകയാണേൽ അതിന്റെ വാടക കാര്യങ്ങളൊക്കെ വരത്തില്ലേ ഡ്രൈവറ് ക്യാഷ് ബാറ്റ ഇങ്ങനൊക്കെ വരും അപ്പം അതൊക്കെ ഒഴിവാക്കാന് വേണ്ടി നമ്മൾ ഹസ്ബൻറ്റ് തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോയത് അതുകൊണ്ട് യാത്രാചിലവിനകത്ത് യാത്രക്ക് വേണ്ടിട്ടുള്ള ചിലവ് വളരെ തുച്ഛമായിരുന്നു പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് മാക്സിമം നമ്മൾ ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുകയും ഉണ്ടാക്കി കൊണ്ട് പോകുന്ന കാര്യമാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഫുഡിന് വേണ്ടിട്ടും വലിയൊരു ചിലവ് നമുക്ക് ചിലവ് നമുക്ക് വന്നിട്ടില്ല പിന്നെ ഒരു ബോട്ടില് വെള്ളങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ബോട്ടിലിനകത്തൊക്കെ വെള്ളങ്ങളൊക്കെ നിറച്ച് തന്നെ കൊണ്ടുപോയി ആവശ്യത്തിനുള്ള ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റി പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ നമ്മൾ പൊ പുറത്ത് നിന്ന് അം അവിടെ അടുത്ത്ന്ന് വാങ്ങിക്കാന് നിൽക്കാതെ പുറത്ത് നിന്ന് നമ്മുടെ വീട്ടിന് അടുത്ത് നിന്നൊക്കെയുള്ള ഷോപ്പുകളിന്നന്നെ വാങ്ങുകയും ഒക്കെയാണ് പോയത് അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ഒരു യാത്ര വലിയ ഒരു യാത്രാ ചിലവും വേണ്ടി വന്നില്ല അതുപോലെ തന്നെ സാമ്പത്തിക ചിലവുകൾ വളരെ ചുരുക്കിക്കൊണ്ടുതന്നെ ആ ഒരു യാത്ര വളരെ സന്തോഷകരമായിട്ട് ചെയ്തു മടങ്ങി വരാനായിട്ട് നമുക്ക് സാധിച്ചായിരുന്നു